ഞാൻ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് ഈ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒക്കെ പെൻസിൽ ഡ്രോയിങ്ങും അതേപോലെ കളർ പെയിൻറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അതിനുള്ള ഇതൊക്കെ ഉണ്ടെൻ്റെ കയ്യില് ടൂൾസൊക്കെ ഇപ്പോൾ പെൻസിലിങ്ങിൻ്റെ ആണെങ്കിലും കളർ പെയിൻറിങിന് കളറൂം കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാനെൻ്റെ ഫ്രീ ടൈം കിട്ടുമ്പോൾ മിക്ക ടൈമിലും ഞാൻ ഇങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ ചിത്രങ്ങളോ ഫേസ്സൊ വരയ്ക്കും ഫെയ്സ് ഒക്കെ വരയ്ക്കാറുണ്ട് പെൻസിൽ ഡ്രോയിങ്ങോ കളറ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അതേപോലെ എന്താണോ കാണണത് അതൊക്കെ ചിത്രത്തിലോട്ട് പകർത്താനും ഞാൻ ശ്രമിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതേപോലെ എൻ്റെ ഫ്രണ്ടിന് അവളുടെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ സർപ്രൈസായിട്ടായിരുന്നു പക്ഷേ ഫ്രണ്ട്സ് ആർക്കും അറിയില്ല ഞാൻ ഇങ്ങനെ ചിത്രം നന്നായി വര വരയ്ക്കും എന്നറിയാം പക്ഷെ ഇങ്ങനെ അധികം ആൾക്കാരുടെ ഒന്നും വരയ്ക്കുന്ന ആര്ക്കും അറിയില്ല വരയ്ക്കുന്ന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഞാനങ്ങനെ അവളുടെ ഒരു ഫോട്ടോ എടുത്ത് അതേപോലെ വരച്ച് നല്ല കളറൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അവളുടെ ചിത്രം അതും കുറച്ച് പാടുപെട്ടിട്ടാണ് ഞാൻ ഇതിനു വേണ്ടി മെന നമ്മള് ഫ്രീ ടൈമിൽ ചെയ്യുമ്പോഴും അതേപോലെ ഇതിനു വേണ്ടി ഇരുന്നു ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ ഒരു കാര്യം വരയ്ക്കാൻ വേണ്ടി ഇരുന്ന് ചെയ്യുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഹാർഡ് ആയിട്ട് തോന്നും അതേസമയത്ത്ത് ഫ്രീ ടൈമിൽ ഒക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് എത്ര പാടുള്ള ചിത്രം നമുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും ഇവളുടെ വരച്ചു കൊടുക്കണം എന്ന് തീരുമാനിച്ചിട്ട് വരച്ചതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പാടും പെട്ടു കാരണം അത് വരച്ച് ഫുള്ളായി കഴിഞ്ഞ് പെയിൻറിങ് ഒക്കെ ചെയ്ത് എടുക്കുമ്പോഴേക്കും സമയമായി പിന്നെ അത് പ്രിൻറ് ചെയ്തു ഫ്രെയിം ചെയ്ത് സെറ്റാക്കി നല്ല ഡിസൈനും ബോർഡറൊക്കെ കൊടുത്തു സെറ്റാക്കിയെടുത്ത് ഒരു ദിവസം ഇവളുടെ ബർത്ത്ഡേക്ക് ബർത്ത് ഡേ ദിവസം അവൾക്ക് കൊടുക്കുക ഉണ്ടായി അവള് ഭയങ്കര എക്സൈറ്റായി കണ്ണ് കൂടെ ഈ സന്തോഷം കൊണ്ട് കരയാനൊക്കെ പറയല്ലേ ആ ഒരു ആകെ കരഞ്ഞു പൊട്ടികരയുക സന്തോഷം കൊണ്ട് കരയുക എന്നിട്ട് ഓള് കുറെ താങ്ക്സൊക്കെ പറഞ്ഞു അത് വളരെ വൈകാരികമായ ഒന്നായിട്ടെനിക്ക് ഫീല് ചെയ്തു